ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മള് വീടും പരിസരവും നല്ല വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടതാണ് ഇപ്പോൾ കൊതുക് പെരുകുന്നത് നമ്മള് തടയുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ പരിസരത്തും ചാലുണ്ടാവും വേസ്റ്റ് കുണ്ടുകളുണ്ടാവും അതുപോലെ മഴക്കാലങ്ങളിലാണ് കൂടുതൽ രോഗങ്ങളൊക്കെ പടരുന്നത് അതുകൊ അതിനാൽ തന്നെ ഇപ്പോൾ ചിരട്ട അതുപോലുള്ള എന്തെങ്കിലും വെള്ളം കെട്ടിനിക്കാൻ സാധ്യത ഉള്ള എന്തെങ്കിലും കണ്ടാൽ അത് ആ വെള്ളം ഒഴിവാക്കാനും അതുപോലെ വീടും അതുപോലെ നമ്മുടെ വേസ്റ്റ് പോവുന്ന ചാലുണ്ടെങ്കിലതും എല്ലാം നല്ല വൃത്തിയോട് കൂടി സൂക്ഷിക്കണം കൊതുക് പെരുകുന്നത് പൂർ പൂർണ്ണമായും തടയുക എന്നത് മാത്രമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങളെ കുറയ്ക്കാനായിട്ട് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടുത്തന്നെ വീട് നല്ല രീതിയിൽ അതുപോലെ കൊതുകുണ്ടെങ്കില് കൊതുകിനെ പോക്കി വീട് വീടൊക്കെ നല്ല വീടും പരിസരവും നല്ല തീയൊക്കെ ഇട്ട് പോകയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താല് പരമാവധി രോഗങ്ങളൊക്കെ കുറയും അതുപോലെത്തന്നെ നല്ല വൃത്തിയോട്കൂടി സൂക്ഷിക്കുകയും വേണം ഇതിപ്പോൾ കൊതുക് പെരുകുക ഇപ്പം എന്തായാലും മുട്ടയിട്ട് പെരുകുന്നത് ചെറിയ വെള്ളങ്ങളിലാണ് ആ വെള്ളം കെട്ടി നിൽക്കുന്നിടത്താണ് മുട്ടയിട്ട് പെരുകുന്നത് അത് പൂർണ്ണമായും തടഞ്ഞാൽ ഈ പകുതി രോഗങ്ങളെയും നമുക്ക് ഒഴിവാക്കാവുന്നതുമാണ്